ആരാ ഇത് ആ ഇന്നലെ വിളിച്ചുണ്ടായിരുന്നു അല്ലേ ആ വേറൊരു വർക്കിൽ പോയിപ്പെട്ടു അതാണ് സംഭവം എന്താ വേണ്ടേ എന്താണൊരു ടാങ്ക് പണിയണം എന്നൊക്കെ പറഞ്ഞു എന്താ സംഭവം ആ ഓക്കെ പതിനഞ്ചായിരം ലിറ്ററാണ് പറഞ്ഞത് അല്ലേ പതിനഞ്ചായിരം ലിറ്റർ നോക്കട്ടെ അപ്പോൾ എത്ര ദിവസം കൊണ്ട് പണിയണം നമുക്കിപ്പം ഒരു നാലഞ്ച് ദിവസത്തിൻ്റെ ഗ്യാപ്പുണ്ടാകും എത്ര ദിവസം കൊണ്ട് നിങ്ങൾക്കാക്കണം ആ ആ ആ ആ നമുക്കതിപ്പം ഇതിൻ്റെ ടാങ്ക് വീട്ടിൻ്റെ മുകളിൽ പണിയണോ അത് ഒരുപാട് വെയിറ്റ് വരില്ലേ പതിനഞ്ചായിരം ലിറ്റർ പറയുമ്പോൾ ആ അത് ആ അപ്പോൾ അങ്ങനെ പണിയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഐഡിയ തന്നെയാണ് അത് അപ്പം നമുക്ക് കുറച്ച് വർക്ക് കുറച്ചും കൂടി എളുപ്പമാകുമെന്ന് തോന്നുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ നമുക്ക് വീടിൻ്റെ മുകളിലേക്ക് വേറെ അപ്പ്സ്റ്റേഴ്സ് എടുക്കണമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവില്ല ഇതാ മറ്റേത് വീടിൻ്റെ മുകളിൽ പണിയണം പറഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടാകും അത് ഇതാകുമ്പോൾ ആ ബുദ്ധിമുട്ട് വരില്ല കുറച്ച് ഹൈറ്റിൽ പില്ലറിട്ട് പണിത് കഴിഞ്ഞാൽ സെറ്റാകും ആ ആ അത് കുഴപ്പമില്ല അത്യാവശ്യം അത് നല്ല ഇത് വെരും പ്രശ്നം വരില്ലാ അത് കുഴപ്പമില്ല നമുക്ക് നോക്കാം അതായത് റെഡിയാക്കാം എപ്പോൾ രണ്ടാഴ്ച്ചക്കുള്ളിൽ പണിയണം അല്ലേ അതിനാണ് ഇപ്പോൾ നമുക്കൊരു നാല് യൂണിറ്റ് എം സാൻഡ് വേണ്ടി വരും പിന്നെ ഒരു നാല് കാലിഞ്ചും കൂടൊരു ഇരുപത്തഞ്ചിൻറ്റു നാല് ഇരുപത്തഞ്ച് അപ്പോൾ ഇരുപത്തഞ്ചല്ലാ പതിമൂന്നര പതിമൂന്നര പതിമൂന്നര ഒരു പത്ത് നാൽപ്പത് കിലോ കമ്പി വേണ്ടി വരും പിന്നേ ആ പിന്നെ പൈപ്പ് കാര്യങ്ങൾ എക്സ്ട്രാ അതൊക്കെ വേണ്ടി വരും അപ്പം എന്തായാലും ഒരു പത്ത് എഴുപത് എൺപത് റുപ്പേൻ്റെ അടുത്ത് ചിലവ് വരും ആ ലേബർ ചാർജും കൂട്ടി വെച്ച് ആ ലേബർ ചാർജ്ജടക്കം അത്രയേ വരികയുള്ളു നമുക്കിപ്പോൾ മൂന്ന് ദിവസത്തെ പണിയല്ലേ ഉള്ളു വരുന്നത് ആ അതൊക്കെ നമ്മൾ റെഡി ആക്കാം റെഡി ആക്കാം അതൊന്നും കുഴപ്പമില്ല ഇവിടടുത്തു നിന്ന് തന്നെ നമുക്ക് എടുക്കാം നമ്മുടെ ശിവദാ ഹാർഡ് വെയേഴ്സിൽ സാധനമുണ്ടാകും അപ്പം അവിടെ നിന്ന് സാധനം എടുക്കാം അവിടെ ഹോൾ സെയിലിൽ സാധനം കിട്ടും അത് കുഴപ്പമില്ല നമുക്ക് അറിയണ പരിചയമുള്ള കടയാണ് ആ ആ ഇന്നിപ്പോൾ നമുക്ക് മുന്നൂറാണ് തോന്നുന്നു വരുന്നത്

ആ അതൊക്കെ വരും അത് നമ്മൾ എന്തായാലും അടിക്കാൻ പറയാം അത് മറ്റെ നമ്മുടെ ആളുണ്ടല്ലോ നമ്മുടെയടുത്ത് ആളുടെ അടുത്ത് പറഞ്ഞ് കഴിഞ്ഞാൽ ആൾ അടിച്ച് തരും ഇപ്പോൾ ഞാൻ നോക്കട്ടെ നാളേ ഞാൻ ആളെയും കൊണ്ട് വരാം കോൺട്രാക്ടറെയും കൊണ്ട് ഒന്ന് വരാം എന്നിട്ട് നമുക്ക് നേരെ നോക്കാം ഏ എന്നിട്ട് എങ്ങനെയാണെന്ന് ഫിക്സ് ചെയ്യാം ആ ആ ഹാ പിന്നെ സ്ഥലവും നോക്കിയിട്ടെ പിന്നെ എങ്ങനെയാണ് അത് കാര്യം നോക്കിയിട്ട് അത് അത് നമുക്ക് ആ മണ്ണൊറപ്പുണ്ടോ കാര്യം നോക്കിയിട്ട് ടെസ്റ്റിംഗും അത് ടെസ്റ്റ് ചെയ്തിട്ട് ബാക്കി ചെയ്യാം